സാമൂഹിക സേവനത്തെ കുറിച്ച് ഞങ്ങളുടെ മതത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഇസ്ലാം മതത്തില് മുഹമ്മദ് നബി സ്വാല്ലള്ളാഹു വലയിവസ്സല്ലം പറഞ്ഞിട്ടുള്ളത് സാമൂഹിക സേവനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നബി തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോള് അതുകൊണ്ടുതന്നെ അത് നബി ചെയ്യാനുള്ള കാരണം എന്താണെന്നു വച്ചാൽ ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പഠിപ്പിക്കുക എന്ന് ലക്ഷ്യം വച്ചിട്ടാണ് അപ്പോള് സമൂഹത്തിലുള്ള ആളുകളെ അതായത് എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവര് അതുപോലെതന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവര് അങ്ങനെ സമൂഹത്തിൽ നബി തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തതായിട്ട് ചരിത്രങ്ങളിൽ വ്യക്തമാണ് അപ്പോള് അതുകൊണ്ടുതന്നെ വളരെ നല്ല രീതിയിൽ എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ എന്നുള്ളത് വളരെ നല്ല രീതിയിലും നബി തന്നെ തൻ്റെ നബിയുടെ ജീവിതംകൊണ്ട് മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കുന്നുണ്ട് ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട് എന്നു തന്നെ വേണമെങ്കിൽ പറയാം അപ്പോള് ഞാൻ ഒരു സോഷ്യൽ വർക്കറാവാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു സെക്കന്റ് ഇയർ വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിനിയാണ് അപ്പോള് അതുകൊണ്ടുതന്നെ സാമൂഹിക സേവനങ്ങൾ ഞാനും ചെയ്യാറുണ്ട് അതുകൊണ്ട് മാത്രമല്ല സാമൂഹിക സേവനങ്ങൾ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ടു തന്നെയാണ് ഞാൻ ഈ ഒരു കോഴ്സ് എടുക്കാനും തയ്യാറായിട്ടുള്ളത് അപ്പോള് ഞാൻ ഒത്തിരി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒക്കെ ഒത്തിരി സേവനങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലെ പ്രധാനമായിട്ടും ഇപ്പോള് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ഉള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെയും കൂടെ കൂട്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടൊരു കട അതിൽ ഒരു കൊച്ചു കട റെഡിയാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ അതുപോലെ ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് പ്രയാസം അനുഭവിക്കുന്നവർക്ക് അതായത് വിദ്യാഭ്യാസത്തിനുവേണ്ടി അഡ്മിഷൻ ലഭിക്കാതെ പ്രയാസം അനുഭവിക്കുന്നവർക്കു വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ എനിക്കു പറ്റിയിട്ടുണ്ട് പിന്നെ അത് പോലെതന്നെ മാതാപിതാക്കളില്ലാത്ത കുട്ടികളുടെ വിഷമങ്ങള് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്